കേരളത്തിലെ കാലാവസ്ഥ ജൂണിതിലൊക്കെ മഴയായിരിക്കും സഞ്ചാരികൾക്ക് സന്ദർശിക്കാൻ പറ്റിയ സെപ്റ്റംബർ കഴിഞ്ഞെല്ലാം നല്ലൊരു കാലാവസ്ഥയായിരിക്കും വെള്ളമെല്ലാം നിറഞ്ഞ് നിന്ന് നല്ലൊരു എന്താണ് ക്ലൈമറ്റ് തന്നെയായിരിക്കും തണുപ്പൊക്കെ കൂടിയ മഴയെല്ലാം നിന്ന് അങ്ങനെ നല്ലൊരു ഇതായിരിക്കും ക്ലൈമറ്റായിരിക്കും പിന്നെ തൊപ്പിയും സൺഗ്ലാസ്സൊന്നും വെക്കണ്ട ആവശ്യം ഇല്ല നമുക്ക് അത്ര വെയിലടിയൊന്നും ഉണ്ടാവില്ല പിന്നെ എന്താണ് ചൂട് ഒരുപാട് ഉണ്ടാവില്ല നല്ലൊരു ക്ലൈമറ്റായിരിക്കും നമുക്ക് എല്ലാവർക്കും എല്ലാവിടെയും ഇറങ്ങി സഞ്ചരിക്കാൻ പറ്റും വെള്ളം ഫോട്ടോ എടുക്കാൻ പറ്റിയും വെള്ളം വെള്ളത്തിൻ്റെ കാഴ്ചകൾ കാണാനും അങ്ങനെ നല്ല രീതിക്കുള്ളൊര് ക്ലൈമറ്റായിരിക്കും നമുക്ക് സഞ്ചാരികൾക്കൊക്കെ വളരെ ഇഷ്ട്ടപ്പെടുന്നൊരു ഇതും കൂടെ ആയിരിക്കും നല്ലൊരു ക്ലൈമറ്റായിരിക്കും പിന്നെ കേരളം എന്ന് പറയുമ്പളെ അറിയാം നല്ല രീതിക്ക് കാണാൻ പറ്റിയ സൂപ്പർ സ് പ്ലൈസൊക്കെ ഉള്ള ഒരു സ്ഥലായിരിക്കും അപ്പോൾ എന്തുകൊണ്ടും സെപ്റ്റംബർ മാസം എല്ലാം കഴിഞ്ഞുള്ള ആ ഒരു ഇത് നല്ല ഒരു ഇത് തന്നെയായിരിക്കും